ഹലോ ആ മനസ്സിലായി ആ ഇല്ല ഞാൻ വെട്ടാൻ എടുത്തിട്ടേ ഉള്ളൂ എന്ത് വർക്ക് ആണ് ചെയ്യേണ്ടത്

ആ ഞാൻ നോക്കട്ടെ ശ്രമിച്ച് നോക്കാം കേട്ടോ ഇല്ല ബുദ്ധിമു ബുദ്ധിമുട്ടാവില്ല കാരണം ഞാൻ വെട്ടാൻ എടുത്തിട്ടേ ഉള്ളൂ അപ്പം ഞാനത് പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല അത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ശ്രമിക്കാം ഞാൻ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് എന്നേക്ക് വേണ്ടി വരും ഇത് ആ ആയിക്കോട്ടെ ഇവിടെ ഇപ്പം വിഷു ഒക്കെയായിട്ട് ഒത്തിരി തിരക്ക് കൂടുതലാണേ അപ്പം പൈസയും കൂടും കേട്ടോ അപ്പം വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്യുമ്പം ഇത്തിരി പൈസ കൂടുതൽ വരുവേ പറഞ്ഞതിലും കൂടുതൽ പൈസ വരും തയ്ച്ച് കഴിയുമ്പം അതിന് കുഴപ്പമില്ലല്ലോ ആ അപ്പോൾ

അതെ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് ഇത്തിരി സമയം പിടിക്കും അപ്പം അതുകൊണ്ട് ഞാനൊരു ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് തരാം അത് പതുക്കെ ചെയ്യേണ്ടി വരുവേ നോക്കി നല്ലവണ്ണം വർക്ക് ചെയ്യണമല്ലോ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കും അല്ലേ അപ്പം നോക്കിയിട്ടത് നല്ലവണ്ണം ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം എന്നിട്ട് നിങ്ങൾ നേരിട്ട് വരൂ എന്തെങ്കിലും അതിന് പോരായ്മ ഉണ്ടെങ്കിൽ അപ്പം നമുക്കത് നോക്കാം പിന്നെ വർക്കിൻ്റെ വർക്കിൻ്റെ അനുസരിച്ച് നമുക്ക് പൈസ കൂടും ആ അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ആയിക്കോട്ടെ ആയ് ശരി ശരി ആയിക്കോട്ടെ ആ താങ്ക് യൂ മ് ശരി ശരി